അപ്പം സംസ്കൃതത്തിൽ നിന്നാണ് നമ്മടെ മലയാളം ഉത്ഭവിച്ചതെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് പിന്നേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഭാഷകളൊക്കെ നമ്മുടെ മലയാള ഭാഷയെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ആദ്യത്തെ കാലത്തൊക്കെന്നു വെച്ചിട്ടുണ്ടെങ്കില് മലയാളം തന്നെയായിരുന്നു ഏകദേശം എല്ലാവരും പറയാറ് കാരണം നമ്മുടെ മാ മാതൃഭാഷയാണല്ലോ മലയാളം പിന്നേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കാര്യങ്ങളിലേക്ക് കടന്നു വന്നു അപ്പോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള ഭാഷക്കൊരു വിലയില്ലാത്ത പോലെയായി കാരണെന്താന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നാലാളു കൂടുമ്പോൾ എല്ലാവരും സംസാരിക്കാൻ കൂടുതലും താൽപര്യപ്പെടുന്നത് ഇംഗ്ലീഷിലൊക്കെയാണ് അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവര് ഇങ്ങനെ ചിന്തിക്കും ഓ ഇവരു നല്ല ഭയങ്കര പഠിപ്പിസ്റ്റാണ് ഇവർക്ക് ഇംഗ്ലീഷിലാണല്ലോ സംസാരിക്കുന്നേന്നു പറയും എന്ന് വിചാരിക്കും അതിപ്പോൾ നമ്മളാണെങ്കിലും ചിന്തിക്കും അപ്പം ആ ഒരിതിനുവേണ്ടി ഇപ്പോൾ കൂടുതൽ ആൾക്കാരും മലയാളം സംസാരിക്കാൻ ഇഷ്ട്ടപ്പെടുന്നില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സത്യാമാണ് നമുക്ക് വാ ഇംഗ്ലീഷ് ഇപ്പോൾ നമ്മടെ മലയാളം മാതൃഭാഷകൊണ്ടു നമ്മളിപ്പോൾ വേറെ രാജ്യങ്ങളിലൊന്നും പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇംഗ്ലീഷു തന്നെ അറിയണം പക്ഷേ നാലാളു കൂടുമ്പോൾ നമ്മള് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ലാന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മാതൃഭാഷ തന്നെ സംസാരിക്കാം അതില് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കൂടുതലായിട്ട് ശ്രമിക്കുക